ശരീരഭാരം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരുപാട് വൈദ്യ മരുന്നുകള് ഇപ്പം പ്രചാരത്തിലുണ്ട് നമ്മുടെ നാട്ടുവൈദ്യച്ചൻ ഒരുപാടങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിലെത്ര മാത്രം ഇതുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഞാനക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ തേനുണ്ടല്ലോ നാടൻ തേൻ നാടൻ തേനൊക്കെ നല്ല ഇളം ചൂട് വെള്ളം മിക്സ് ചെയ്ത് അതിരാവിലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ശരീരഭാരം കൂടും എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതില് എത്ര മാത്രം സത്യമുണ്ട് എന്നതില് ഞാൻ പരീക്ഷിച്ചിട്ടില്ല പക്ഷേ ഞാനിങ്ങനെ കേട്ടൊരറിവ് മാത്രമാണ് നമ്മുടെ ചില വീട്ടിലൊക്കെ ആയാലും നമ്മുടെ പാരെൻസും പിന്നെ നാട്ടു വൈദ്യരൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഈ ശരീരഭാരം കൂടാനായിട്ട് നാടൻ തേനില് ചെറു ചൂട് വെള്ളത്തി മിക്സ് ചെയ്ത് അതിരാവിലെ കുടിച്ചാലത് നമ്മുടെ ശരീരത്തില് പിടിക്കും അത്കൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കൂട്ടാൻ അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത്പോലെ മറ്റ് ഒരുപാട് ശരീരഭാരം കൂട്ടാനായിട്ടുള്ള മറ്റ് ഭക്ഷണ പതാർത്ഥങ്ങൾ അതൊക്കെ കഴിക്കുന്നതും അങ്ങനെ ഒക്കെ ഒരുപാട് കാര്യങ്ങള് ഞാന് കേട്ടിട്ടുണ്ട് ഈ ശരീരഭാരം കൂട്ടാനായിട്ട് അതൊര് ഞാനിതുവരെ ഒന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അത്കൊണ്ട് തന്നെ എനിക്കതിനെ പറ്റി അതിൻ്റെ ഇതായിട്ട് നമുക്ക് അറിയില്ല ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പ്രചാരത്തിന് നാട്ടിലൊക്കെ ഒരുപാട് പേരിങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ഇതാണ് ഇങ്ങനെ തേൻ കുടിക്കുന്നത് നല്ലതാണ് എന്ന് അതുപോലെ മറ്റ് വേറെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചാൽ ശരീരഭാരം കൂട്ടാം എന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിതുവരെ അത് ഉപയോഗിച്ച് നോക്കാത്തത് കൊണ്ട് നമുക്കതിനെ പറ്റി ആ ഒരു ഇതായിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല